ഹലോ ഡയാന ഹോട്ടൽ അല്ലേ ഞാൻ അടൂരിൽ നിന്നാണെ വിളിക്കുന്നത് ഞാൻ ഒരു എട്ടു മണി ഇന്ന് ര രാത്രി ഒരു എട്ടു മണി ആയപ്പോഴൊരു ചിക്കൻ ഫ്രൈയും ഒരു തന്തൂരി ചിക്കനും ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഡെലിവറി ബോയ് അതു കറക്റ്റ് സമയത്തു തന്നെ എത്തിച്ചു പക്ഷെ കൊണ്ടു വന്നു തന്ന സാധനം മാറിപ്പോയേ നിങ്ങൾക്ക് ഈ ഈ ഈ സ്ഥലത്തു തന്നെ രണ്ട് ഇടത്ത് ഡെലിവറി ഉണ്ടെന്നറിഞ്ഞിരുന്നു മാപ്പിനകത്തു കാണിച്ചിരുന്നത് അതു കൊണ്ട് മാറിപ്പോയതാകാം പക്ഷേ ഞാൻ ഓഡർ ചെയ്ത സാധനം കറക്റ്റ് കിട്ടിയിട്ടില്ല ഒന്നെങ്കിൽ അതു മാറിത്തരിക അല്ലേ അതിൻ്റെ റീഫണ്ട് തരികെ തരേണ്ടതാണ് മാന്യത ആ രണ്ടു രീതിയിൽ എങ്ങനെയാണെന്നു വെച്ചാൽ നോക്കിയിട്ട് ഈ നമ്പറിലോട്ടു തന്നെ വിളിച്ചാലും മതി അല്ലെങ്കിൽ റീഫണ്ടാണെങ്കിൽ ഈ നമ്പറിലേക്കു റീഫണ്ട് ചെയ്താലും മതി എങ്ങനെയാണെന്നു നോക്കിയിട്ടൊന്നു പറയണോ പറയണേ